ആ പറഞ്ഞോ സാറേ കേൾക്കാം

വികാരിയച്ചൻ ആ ആ മാളിയേക്കലച്ഛൻ ആയിരിക്കും ആ ആ ഉണ്ട് അച്ഛാ ഞാൻ രാവിലെത്തെ കുർബാനയ്ക്കാണ് വരുന്നത് അഞ്ചരയുടെ കുർബാനയ്ക്കാണ് ഞാൻ വരുന്നത് അതാണ് കാണാത്തത് ഞാൻ സ്ഥിരമായിട്ടതിന് ആ കുർബാനയ്ക്കാണ് വരുന്നത് എല്ലാ ഞായറാഴ്ച്ചയും വരുന്നുണ്ട് ആ കുമ്പസാരം കുമ്പസാരം ഞാൻ ആണ്ടിലൊരു പ്രാവശ്യം കുമ്പസാരിക്കത്തുള്ളൂ അച്ഛാ ഈ എന്നാ കാര്യം എന്ന് പറഞ്ഞു കയിഞ്ഞാൽ ഒന്ന് അത് നമ്മൾ അത്ര വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ തന്നെ സ്വന്തം സ്വമേധയാ അങ്ങ് പാപം പാപങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളെ വീട്ടിലും ഭാര്യയേയും പിള്ളേരെയൊക്കെ വഴക്ക് പറയുകയും അത്യാവശ്യം ആയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നോർമലി അതൊക്കെ കേട്ട് ഏഹ്

ആ ആ ആ ആ ആ

സൗണ്ട് ഉണ്ട്

ആ ആ ആ ആ

അതെ അതെ

പള്ളിയുടെ അറിയാം അറിയാം

ഇതിൽ മാസത്തെ എന്നാലും സംസാരിക്കണമായിരുന്നു അല്ലേ അച്ഛാ ഇതിപ്പം മിനിമം അല്ലേ ഇപ്പം ഞാനിപ്പം ആ ഞാനിപ്പം അതല്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ട് കുമ്പസാരം നമ്മുടെ ക്രിസ്മസ് ഈസ്റ്ററിനല്ലേ ഈസ്റ്ററിനുള്ള കുമ്പസാരമാണ് മറ്റേ ക്രിസ്മസിനും ഈ ആണ്ട് കുമ്പസാരത്തിന് മാത്രമേ പോയാൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ ശരിയാവത്തില്ലല്ലോ ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രം കുമ്പസരിച്ചാൽ പോരല്ലോയെന്ന് ആ ഞാൻ വരാം അച്ഛാ എന്നാൽ എത്രയും വേഗം വരാം അച്ഛൻ്റെ അടുത്ത് വരാം ഓക്കെ ഓക്കെ അച്ഛാ ഓക്കെ ഓക്കെ അച്ഛാ